കൃഷി നമ്മുടെ നാടുകളിൽ കു കൂടുതൽ ആൾക്കാരാരും ചെയ്യാറില്ല അതുകൊണ്ടാണ് നമ്മൾ പച്ചക്കറി മലക്കറി സാധനങ്ങൾ പുറത്ത് നിന്ന് വാങ്ങേണ്ടി വരുന്നത് നമ്മുടെ നാട്ടുകാർ കൃഷി ചെയ്യുവാണേൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് കുറച്ച് പൈസകൾ കിട്ടിയേനെ പക്ഷെ നമ്മുടെ നാട്ടുകാർ കൃഷി ചെയ്യാറില്ല നമ്മളതുകൊണ്ട് നമ്മൾ പുറത്ത് നിന്ന് നമ്മൾ പച്ചക്കറി മലക്കറി അങ്ങനത്തെ സാ കാര്യങ്ങള് വാങ്ങാറുണ്ട് നമ്മുടെ നാട്ടുകാര് അഥവാ കൃഷി ചെ ചെയ്യുന്നുണ്ടായിരുന്നേൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാനുള്ള തി ഒരു ഇത് ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ നാട്ടുകാർ കൃഷി ചെയ്യാറില്ല നമ്മുടെ നാട്ടുകാർ അതുകൊണ്ടാണ് നമ്മൾ പുറത്ത് നിന്ന്